ഞങ്ങളെ നാട്ടിൽ വണ്ടൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു തിയേറ്റർ ഉണ്ട് എനിക്ക് സിനിമകള് കാണാന് നല്ല ഇഷ്ടമാണ് ഹരിഹര് എന്ന് പറഞ്ഞ തിയേറ്റർ ആണ് അവിടെ ഉള്ളത് ഡിജിറ്റൽ തിയേറ്റർ ആണ് അതിലിരുന്ന് സിനിമ കാണാന് നല്ല സുഖമാണ് എ സിയൊക്കെ ഉള്ള തിയേറ്റർ ആണ് പണ്ട് അവിടെ ഗോപിക എന്ന് പറഞ്ഞ തിയേറ്റർ ആയിരുന്നു അത് സാധാ പഴയ തിയേറ്റർ ആയിരുന്നു അത് വലിയ കുഴപ്പമൊന്നും ഇല്ലായിരുന്നു പിന്നെ ഞങ്ങൾ അവിടെ വണ്ടൂർ ലുബ്ന പറഞ്ഞ തിയേറ്റർ ഉണ്ട് അതിന് നല്ല പഴയ കാലത്തെ ഒരു തിയേറ്റർ ആയിരുന്നുഅത് സിനിമ കാണാനും കുഴപ്പമൊന്നും ഇല്ലായിരുന്നു ഇപ്പം ഡിജിറ്റല് ആയപ്പോൾ നല്ല സുഖമാണ് സൗണ്ടുകളൊക്കെ നല്ല മുന്നിൽനിന്നൊക്കെ നല്ല നല്ല സൗണ്ടുകൾ വരും പിന്നെ കാണാനും നല്ല ക്ലിയർ ഉണ്ട് അതുപോലെത്തന്നെ ഇവിടുന്നൊരു പത്ത് പതിനഞ്ചു കിലോമീറ്ററ് കഴിഞ്ഞാൽ നിലമ്പൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഫെയർലാൻഡ് പറഞ്ഞ തിയേറ്റർ ഉണ്ട് ആ തിയേറ്ററിലും സിനിമ കാണാന് നല്ല രസമാണ് അത് രണ്ട് സ്ക്രീന് ഉണ്ട് താഴെയും മേലെയായിട്ടാണ് സിനിമ കണ്ടത് അതങ്ങനെ അവിടെ നല്ല രസമാണ് കാണാന് നല്ല അടിപൊളി തിയേറ്റർ ആണത് അത് ആദ്യം പഴയൊരു തിയേറ്റർ ആയിരുന്നു സാധാ തിയേറ്റർ ആയിരുന്നു അതുപിന്നെ ഡിജിറ്റൽ ആക്കി മാറ്റിയതാണ് ഇപ്പോഴത്തേതൊക്കെ അതിനനുസരിച്ചിട്ട് അവർ ഡിജിറ്റൽ ആക്കി മാറ്റിയത് അങ്ങനെ അവിടെ നിലമ്പൂർ പിന്നെ പഴയ വേറെയും കുറേ സിനിമാ ഹാൾ ഉണ്ടായിരുന്നു ജ്യോതി പറഞ്ഞ സിനിമാ ഹാൾ ഉണ്ടായിരുന്നു കീര്ത്തി ഓരൊക്കെ അന്ന് അവിടെ അന്നത്തെ കാലഘട്ടത്തിലെ നല്ല ഏറ്റവും നല്ല തിയേറ്ററുകൾ ആയിരുന്നു അത് അതേ മാതിരി രാജേശ്വരി പറഞ്ഞ് ഫസ്റ്റിലുണ്ടായ തിയേറ്റർ അതാണ് രാജേശ്വരി പറഞ്ഞ് അതിലൊക്കെ സിനിമ കാണാൻ നല്ല രസമായിരുന്നു അന്നത്തെ കാലത്ത് അത് നല്ല രസമായിരുന്നു ഇപ്പോൾ പിന്നെ അതൊക്കെ ആയതുകൊണ്ട് ഇപ്പം നല്ല ഡിജിറ്റല് ഇപ്പോൾ ഫെയർലാൻഡ് പറഞ്ഞ തിയേറ്റര് മാത്രം ഉള്ളൂ അത് ഡിജിറ്റൽ ആണ് അതുപോലെത്തന്നെ നല്ല സിനിമയാണ് ഒക്കെ അവിടെ വരാറുണ്ട് അപ്പോൾ അവിടെ അങ്ങനെ പോയി കാണലുണ്ട്